ആ അതെ പറഞ്ഞോളൂ

വയനാട്ടിലേക്കാണോ ആ എത്ര പേരുണ്ടാവും പതിനഞ്ച് പേർ അല്ലേ നിങ്ങൾ വണ്ടിയിൽ തന്നെയാണോ വരുന്നത് ആ നമുക്കത് റെഡി ആക്കി തരാം ക്യാബ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പതിനഞ്ച് പേർ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ട്രാവലർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ട്രാവലർ ബുക്ക് ചെയ്ത് തരാം എത്രാം തീയതിക്കാണ് വരുന്നത് ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരുന്ന ടൈമും ഒന്ന് നമുക്ക് പറഞ്ഞുതന്നാൽ മതി നമ്മൾ ആ ടൈമിന് ആവുമ്പോഴത്തേനും വണ്ടിയും കാര്യങ്ങളും നമ്മൾ അവിടെ എത്തിച്ചുതരാം അപ്പോൾ ട്രെയിനിനാണെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റിനാണെങ്കിൽ ആ ആ ടൈമും പറഞ്ഞാൽ മതി നമ്മൾ എപ്പോഴാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ എത്തിച്ചുതരും പിന്നെ പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ അതായത് നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യണോ അതോ നിങ്ങൾ ആ റൂം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ നമ ആ ഞങ്ങളുടെ കെയർ ഓഫിൽ റൂം ഉണ്ട് റിസോർട്ട് ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെറ്റ് ആക്കിത്തരാം ആ നമുക്ക് റിസോർട്ടുകളിൽ റെസ്റ്റോറൻ്റ് നാടൻ ഫുഡ് പിന്നെ അല്ലാത്ത ഫുഡുകൾ കാര്യങ്ങൾ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ അറേഞ്ച് ചെയ്തു തന്നാൽ മതിയല്ലേ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നാണ് വരുന്നതെന്നാണ് പതിമൂന്നാം തീയതി രാത്രി എത്തുമല്ലേ ഓക്കേ ആ ആ ടൈമിൽ ഞങ്ങളവിടെ എത്തി നിങ്ങളെ പിക്ക് ചെയ്തിട്ട് ഇപ്പോൾ വയനാട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളും കാണേണ്ടേ ആ ഓക്കേ അപ്പോൾ വയനാട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ടു തീരുമ്പോഴത്തേക്കും ഒരു ടു വീക്സ് എന്തായാലും ആവും ആ അപ്പോൾ നം നമുക്ക് ആദ്യം കാണാവുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വരുന്ന വഴിക്ക് തന്നെ നമുക്ക് വൈത്തിരിയിലെ അതായത് വൈത്തിരി വ്യൂ പോയിന്റ് ഇല്ലേ നമ്മളെ താമരശ്ശേരി ചുരം ആ അത് അത് കാണാം നമുക്ക് പിന്നെ അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ അവിടെത്തന്നെ റിസോർട്ട് കാര്യങ്ങളൊക്കെയുണ്ട് നിങ്ങൾക്ക് അവിടെ താമസിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം കേട്ടോ ആ ഓക്കേ ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ ഇനി വരുമ്പോൾ വിളിച്ചാൽ മതി ഓക്കേ ഉം ഓക്കേ